വയനാട് ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ടും ഉള്ളതിനേക്കാളും ഇപ്പം കുറേ മാറ്റം വന്നിരിക്കുന്നു നമ്മുടെ റോഡ് തന്നെ ആദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ കല്ലിട്ട റോഡുകളും അങ്ങനത്തെയൊക്കെയായിരുന്നു എങ്കിലും ഇന്ന് ഇന്നത്തെ കാലത്തെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഹൈവേയ്സ് ആണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഹൈവേയ്സ് ആണ് വയനാട്ടിൽ പിന്നെ പാർപ്പിട സൗകര്യങ്ങളൊക്കെ കുടുതലായിട്ടിപ്പം മൊത്തത്തിൽ ഉണ്ട് ഫ്ലാറ്റുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കുടുതലായിട്ട് അതുപോലെത്തന്നെ നമ്മൾക്ക് ഒരു ഒരു സാധനം വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഷോപ്പിംഗ് മാൾസ് എന്നു പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് എന്തു സാധനം വേണമെങ്കിലും ആ മാളിൽ ഉണ്ടാകും ഇപ്പോൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം മേക്കപ്പ് സാധനങ്ങളാണെങ്കിൽ അങ്ങനെ പിന്നെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു മാൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ പണ്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്ത് റൂമിനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു എന്നാൽ ഈ കാലത്ത് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലും ഓരോ ബാത്ത് റൂമെങ്കിലും മിനിമം ഉണ്ടാകാറുണ്ട് നമുക്കിപ്പോൽ ഒരു കടയ്ക്ക് ചെന്നു കയറുകയാണെങ്കിൽ ആ കടയിലും ഒരു ബാത്ത് റൂം സൗകര്യം ഉണ്ടാവും അങ്ങനെ എല്ലാ ഇടത്തും ബാത്ത് റൂമ്സിന് സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെതന്നെ നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ കയറുകയാണെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെയൊരു ബാത്ത് റൂം ഉണ്ടാവും പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തു നോക്കണമെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിങ്ങ് റൂംസ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ വയനാട്ടിൽ ഇപ്പം വന്നിട്ടുണ്ട്